ആ ഓക്കെ ഞാൻ എങ്ങനെ ആണ് സാറിനെ ഹെൽപ് ചെയ്യേണ്ടത് ആ ഓക്കെ സർ മനസ്സിലായി ഇപ്പോൾ ട്രക്കിങ്ങിന് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ് സർ മഴ ആയത് കൊണ്ട് കുറച്ച് നാളേക്ക് ഇപ്പോൾ എന്താണ് പറയുക അടച്ച് ഇട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലവും ഓപ്പൺ ആയിട്ടുണ്ട് ഉടനെ ഇപ്പോൾ നമുക്ക് നമുക്ക് ഇപ്പോൾ കുറുമ്പാലക്കോട്ട കാണാൻ പറ്റും പിന്നെ പക്ഷിപാതാളം പിന്നെ ചെമ്പ്ര പീക്ക് പിന്നെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആണെങ്കിൽ മുത്തങ്ങ ഉണ്ട് ചിതലയം വാട്ടർഫാൾസ് അതുതന്നെ വയനാട്ടിൽ തന്നെയാണ് സർ

നമുക്ക് ഒരു വൺ വീക്ക് വൺ ആൻഡ് ഹാഫ് അത്ര ഒക്കെ വീക്ക് വേണ്ടി വരും ഓൾമോസ്റ്റ് അല്ലാതെ ഇതിപ്പോൾ പക്ഷിപാതാളത്തിലേക്ക് ഒക്കെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഫുൾ ട്രാവൽ ഉണ്ട് സർ ആ ഓക്കെ

ആ ഉണ്ട് ഉണ്ട് വണ്ടി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാർ എത്ര മെമ്പേഴ്സ് ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് അനുസരിച്ച് ഞങ്ങൾ വണ്ടി വിടുന്നത് ആയിരിക്കും ആ ഓക്കെ അപ്പോൾ ഒരു ഇന്നോവ സെവൻ സീറ്റർ ഏതെങ്കിലും വണ്ടി വിട്ടാൽ മതിയായിരിക്കുമല്ലോ അല്ലേ

ആ അവിടുന്ന് ഞങ്ങൾ പിക്ക് ചെയ്തോളാം സാറിൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം ഒക്കെ ഏകദേശം പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ആ ടൈമിൽ വരാം എങ്ങനെ ആ അത് ഇപ്പോൾ നമ്മൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് പറയുക താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിൻറ്റ് അടിപൊളിയാണ് സർ അപ്പോൾ അത് തന്നെ ആണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്ന ഒരു സ്പോട്ടും ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്ന് വന്ന് ഓരോ സ്ഥലങ്ങൾ ഉണ്ട് വരുന്ന വഴി തന്നെ നമുക്ക് പൂക്കോട് ലേക്ക് ഉണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മൾ കൽപ്പറ്റ എത്തും കൽപ്പറ്റയിൽ നിന്ന് പിന്നെ മേപ്പാടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെമ്പ്ര പീക്ക് ഉണ്ട് നമുക്ക് അങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് നൈറ്റ് ആകുമ്പോഴത്തേക്കും അവിടെ തന്നെ ഏതെങ്കിലും നിയർ ഉള്ള റിസോർട്ടിൽ സ്റ്റേ ചെയ്യാം ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം എങ്ങനെ ആണ് സാറിൻ്റെ ഫുഡിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ എങ്ങനെ എന്ന് നോക്കിയിട്ട് നമുക്ക് ഫൈവ് സ്റ്റാർ ഫുഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നോർമൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം